എവിടെ നിന്നാണ് വിളിക്കുന്നത്

ആ ഏതു തരത്തിലുള്ളതാണ് നോക്കുന്നത് ആ നമുക്കിവിടെ പലതരത്തിലുള്ള വുഡ്ഡുകൾ വരുന്നുണ്ട് തേക്ക് മഹാഗണി ഇവിടെയുള്ള ടേബിൾ ടേബിൾ ഒറ്റക്കാണോ ടേബിൾ തന്നെ സെൻറർ ടേബിൾ ഉണ്ടാകും സൈഡ് ടേബിൾ സൈഡ് ടേബിൾ ഉണ്ടാകും സെൻറർ ടേബിൾ വരുന്നത് ആറ് എഴുന്നൂറാണ്

ഒരു ഒൻപതേ എഴുന്നൂറ് വരുന്നുണ്ട് ആ അതിന് അത് ഒരു ആറെണ്ണം അതിനൊപ്പം ഉണ്ടാകും ആ റൗണ്ട് ആണെങ്കിൽ പത്ത് പത്ത് രൂപ വരുള്ളൂ ഒൻപതേ തൊള്ളായിരത്തി തണ്ണൂറ്റൊൻപതാണ് ഉണ്ട് അതുണ്ട് ടേബിൾ തന്നെയാ ഒൻപതേ ഇരുന്നൂറായിരുന്നു ടേബിൾ മാത്രമാണോ ടേബിൾ മാത്രം മതിയോ ആ നമ്മൾ ഓണമായിട്ടും വിഷുവായിട്ടും ഓ ഓഫർ ഉണ്ട് കോംബോ ഓഫറായിട്ട് ഒരു ബെഡ് റൂമിലേക്കുള്ള സാധനങ്ങളാണ് അതിൽ വരുന്നത്

അതൊരു നാൽപ്പത്തിയഞ്ച് വരും കട്ടിലുണ്ടാകും ടേബിളുണ്ടാകും പിന്നെ സോഫ

ഇത് മലപ്പുറമാണ് വരുന്നത് മലപ്പുറം ടൗണിലാണ് വരുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഷോ റൂമുമായി ബന്ധപ്പെട്ടാൽ മതി